കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക്ക് മോട്ടറ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വച്ചാൽ പൈപ്പ് വേണം അതിന് ഇന്ധനം പിന്നെ കരണ്ട് വച്ച് നമ്മൾ പിന്നെ കറണ്ടുള്ള മോട്ടറാണെങ്കിൽ കരണ്ട് വേണം അല്ലാതെ ഇന്ധനം അതായത് നമ്മൾ ഇന്ധനം ഒഴിച്ചിട്ട് പ്രവർത്തിക്കുമല്ലോ മോട്ടറുകൾ കറണ്ടില്ലാതെ ഇന്ധനം വച്ച് പ്രവർത്തിക്കുന്ന മോട്ടറുകളും ഉണ്ട് ഇപ്പം നമ്മൾ അതിനനുസരിച്ച് അതിന് വേണ്ട എല്ലാ സെറ്റിങ്ങ്സും ചെയ്തു കൊടുത്ത് പൈപ്പിട്ടിട്ടുണ്ടെങ്കിൽ മേലോട്ട് വെള്ളം വരും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടു വരുന്നത് കരണ്ടിൻ്റെ മോട്ടറാണ് സ്വിച്ച് ബോർഡും കാര്യങ്ങളും വയറും പിന്നെ അങ്ങനെയൊക്കെയുള്ള സാധനം വച്ച് മിഷെൻ ഇറക്കി അതായത് നമ്മുടെ മോട്ട്റ് വെള്ളത്തിൽ ഇറക്കുന്നതും ഉണ്ട് വെള്ളത്തിൻ്റെ മേലെ വയ്ക്കുന്നതും ഉണ്ട് അപ്പം അതിനനുസരിച്ച് ഓരോ കപ്പാസിറ്ററുണ്ട് എത്ര എത്ര വെള്ളം എത്ര ഇതാക്കാം അങ്ങനെയുള്ള കപ്പാസിറ്ററൊക്കെ വച്ച് അങ്ങനെയാണ് വെള്ളം നാം പിന്നെ നമ്മൾ അടിച്ച് കയറ്റുന്നത്